പറയൂ ആ അതുതന്നെ എനിക്ക് ഒരു പതിനഞ്ചായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് പണിയണം ടെറസിൻ്റെ മുകളിൽ അപ്പം അതിനെന്തൊക്കെയാണ് എന്തൊക്കെ എപ്പം ചെയ്ത് തരാൻ പറ്റും അതിനെന്തൊക്കെയാണ് വേണ്ടത് സാധനങ്ങൾ

അതെ ആ ഞാൻ രണ്ടാഴ്ച്ച എടുത്തോളൂ അത് കുഴപ്പമില്ല രണ്ടാഴ്ച്ചക്കുള്ളിൽ ചെയ്ത് തന്നാലും മതി അല്ലാ അത് അപ്പം നമുക്ക് മുകളിലും ആ അല്ലാ നമുക്ക് ഇവിടെ താഴേ പില്ലർ വെച്ച് പണിതിട്ട് സെപ്പറേറ്റ് പണിയാം അപ്പോൾ കുഴപ്പമില്ലല്ലോ നാല് പില്ലർ വെച്ചിട്ട് പില്ലറിൻ്റെ മുകളിൽ ടാങ്ക് പണിതാൽ മതി

ആ

ആ അതുതന്നെ അപ്പം പിന്നെ ഡബിൾ സ്റ്റോറിലേക്ക് വെള്ളം ഉപയോഗിക്കാനും പറ്റുമല്ലോ മുകളിലത്തെ നിലയിലേക്ക് വെള്ളം ഉപയോഗിക്കാനും പറ്റും ആ വിധത്തിൽ ഉദ്ദേശിച്ചാണ് അപ്പം ഇത്തിരി ഹൈറ്റും നല്ല ഹൈറ്റും എത്ര ലേബർ വരും ലേബർ ചാർജ് എത്ര വരും അതിനെന്തൊക്കെ സാധനങ്ങൾ വേണം

ആ വാർക്കാൻ അല്ലേ ആ എന്തായാലും ലി അത്രയുണ്ടോ ഓക്കെ ആ അത് കുഴപ്പമില്ല ലേബർ ചാർജ് അടക്കം അത്രയേ ആവുകയുള്ളൂ ആ എനിക്കിത്രയും ഞാൻ പറഞ്ഞത്രയും ലിറ്റർ കവർ ചെയ്യണം അതാണ് ഉദ്ദേശം ലേബർ ചാർജ്ജല്ല എൻ്റെ പ്രശ്നം ലേബർ ചാർജ് എത്ര ആയാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് പോലെ നല്ല രീതിയിൽ പണിത് തരണം സമയമെടുത്താലും കുഴപ്പമില്ല നീറ്റായിട്ട് ചെയ്ത് തരണം വെള്ളം ചോരാൻ പാടില്ല ആ അവരുടെ ഹോൾ സെയിൽ റേറ്റാണ് അതെയോ ആ അതേപോലെ സിമൻറ്റ് ചാക്ക് എത്ര വരും സിമൻറ്റിൻ്റെ റേറ്റ് ചാക്കിന് അല്ലേ ആ അപ്പം നമുക്കൊരു പത്ത് എഴുപത് ചാക്ക് വേണ്ടി വരില്ലേ മിനിമം വരും ആ ആ പിന്നെ ബേബി മെറ്റൽ വേണ്ടി വരില്ലേ ആ ആ അപ്പം ഈ പില്ലറിന് ബേസ് കെട്ടേണ്ടി വരുമോ പില്ലറായത് കൊണ്ട് കരിങ്കല്ലിൽ ബേസ് ആ ആ എന്നിട്ട് വാട്ട്സപ്പി എന്നിട്ട് ബ ബാക്കി പറയാമെന്നല്ലേ

ആ ശരി ശരി